പുതുതായിട്ട് പക്ഷി നിരീക്ഷണത്തിലേക്ക് കടന്നു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പക്ഷികളെ തേടി പോകേണ്ട ആവശ്യമില്ല അവർ നമ്മളുടെ അടുത്തേക്ക് വരും കാരണം നമ്മൾ ഒരു വൈൽഡ് വൈൽഡ് ലൈഫ് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ നമ്മൾ ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോയിട്ട് കാര്യം ഇല്ല നമ്മൾ കുറച്ചു ടൈം എടുത്തു പയ്യെ നമ്മൾ എല്ലാം ഒബ്സർവ് ചെയ്തു ചെറിയ സൗണ്ട് പോലും ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കിളികളുടെ മനോഹരമായ പിക്ച്ചേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും നമ്മൾ ഇപ്പം വലിയ മരത്തിന് മണ്ടയിൽ കയറി

അത് റിയാക്റ്റ് ചെയ്യും പക്ഷെ മറ്റു ചില പക്ഷികൾ വളരെ സൈലൻ്റും കാമും ആയിരിക്കും അവരെ നമ്മൾ വച്ചു നമ്മൾ നമ്മുടെ ഇടയിലുള്ള ഒരാളെ പോലെ അവർ കാണും അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പക്ഷികളെയും കാണാൻ പറ്റും പക്ഷെ നമുക്ക് അതിനെ ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ല നമുക്ക് ഇപ്പം കാണാം അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ നിരീക്ഷിക്കാൻ മാത്രമേ നമുക്ക് പക്ഷി നിരീഷ്ണത്തിൽ പറ്റുകയുള്ളൂ നമുക്ക് ചെറിയ ചെറിയ ഫോട്ടോസും കാര്യങ്ങൾ ഡോക്യൂമെൻറി പോലെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ